തൊഴിലവസരങ്ങൾ വിശാലമാകുന്ന സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിച്ചു എന്നു നമുക്ക് നോക്കാം ഇന്നത്തെക്കാലത്ത് തൊഴിലവസരങ്ങൾ നമുക്ക് വിശാലമാകുന്ന ഒട്ടനവധി സാങ്കേതിക വിദ്യ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ഐ എന്നു പറയുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എ ഐ വന്നതോടുകൂടി തൊഴിലവസരങ്ങൾ വിശാലമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി

പിന്നെ ഒരു കാര്യമാണ് കൃഷി കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടുകാലങ്ങൾ മുതലേ തൊഴിലവസരം ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലവസരമായ കൃഷി എന്നു പറയുന്നത് കൃഷിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ കൃഷി പണ്ടു കാലങ്ങളിൽ ചെയ്തതുകൊണ്ട് മാനുവലായി അതായത് മനുഷ്യർ സ്വന്തമായി തന്നെ ചെയ്തുകൊണ്ട് പിന്നെ മൃഗങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയുണ്ടായി പിന്നീടത് ഇന്നത്തെക്കാലത്ത് നോക്കുകയാണെങ്കിൽ കൃഷിയെന്നു പറയുന്നത് മറ്റു യന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് തീർന്നു വിദേശരാജ്യങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കൃഷി എന്നു പറയുന്നത് വലിയൊരു കാര്യമായിത്തന്നെ കണ്ടുകൊണ്ട് അവർ ചെയ്യുന്നത് അതായത് വലിയ സ്ഥലങ്ങൾ വലിയ സ്ഥലങ്ങളെടുത്ത് കൃഷിയെ നമുക്ക് കാണാവുന്നതാണ് അതിൽ തന്നെ ജെറ്റ് മറ്റു വിമാനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് വളങ്ങൾ ജലം എന്നിവയെല്ലാം എത്തിക്കാൻ സഹായിക്കുന്നു പിന്നെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയില്ലാതെ നമുക്ക് ഇന്നത്തെക്കാലത്ത് ഏതൊരു സമൂഹത്തിലും നമുക്ക് കൃഷിയില്ലാതെ നമുക്ക് ജീവിച്ചുപോവാൻ സാധിക്കില്ല പിന്നെയാണ് എ ഐ കൊണ്ടുതന്നെ നമുക്ക് അതായത് കമ്പ്യൂട്ടർ മേഖലയിൽ വന്ന മാറ്റങ്ങൾ പറയുവാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു കുഞ്ഞു വസ്തുക്കളൊ അല്ലെങ്കിൽ നമുക്കൊരു സീനിയർ ഓഫീസിന് എന്തൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സെമിനാർ എടുക്കുകയാണെങ്കിൽ ഒരു പി പി ടി ഉണ്ടാക്കാനാണെങ്കിൽ എ ഐ കൊണ്ട് നമുക്ക് സഹായം കൊണ്ട് ചെയ്യാവുന്നതാണ് പിന്നീട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടീച്ചിംഗ് ടീച്ചിംഗ് എന്നു പറയുന്നത് ഇന്നത്തെക്കാലത്ത് എ ഐ കൊണ്ടുതന്നെ ഒത്തിരിയധികം കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഒട്ടിനവധി ഒത്തിരിയധികം അത് പി പി ടികൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ തൊഴിലവസരം വിശാലമാകുന്ന സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിച്ചൂ നോക്കുകയാണെങ്കിൽ ഏതൊരു തൊഴിലവസരങ്ങൾ നേടിയെടുക്കുകയെന്ന് ഒരുവൻ നമുക്ക് ഇന്ന ഇന്ന വസ്തുക്കൾ നമുക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യകൊണ്ട് തന്നെ നമുക്ക് ഒപ്പിക്കാനാകും പിന്നെ ജനപ്രിയമായിത്തീർന്ന പുതിയ ജോലികൾ ചിലതിൽ പേരു പറയാമൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഡോക്ടർ പിന്നെ വരുന്നതാണ് അധ്യാപകൻ പിന്നെ വരുന്ന സിവിൽ സർവീസ് പിന്നെ വരുന്നത് നേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ ജനപ്രിയ ജനപ്രിയമായിത്തീർന്ന പുതിയ ജോലികളാണ്